ഈ മുൻസിപ്പാലിറ്റി പഞ്ചായത്തുകൾ മെയിനായിട്ട് ചെയ്യുന്നത് റോഡ് അതായത് പിന്നെ ഈ ഇട റോഡുകളൊക്കെ ഉണ്ടാവും നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ വാഡുകളിലൊക്കെ റോഡ് വൻ മോശമായിരിക്കും അങ്ങനെയുള്ള റോഡ് നിർമ്മാണം പിന്നെ വീടുകൾ നമുക്ക് ഇല്ലാത്തവർക്ക് വീട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പഞ്ചായത്തുകാർ ചെയ്യുന്നുണ്ട് അതേപോലെ സ്വയം തൊഴിൽ കുടുംബശ്രീ മുഖേന സ്ത്രീകളെ ഉന്നമനത്തിലെത്തിക്കാനും ആദിവാസികൾക്കു ഉന്നമനം നൽകാനും ഈ മുൻസിപ്പാലിറ്റികളും പഞ്ചായത്തുകാരും മുൻ അവർക്ക് മുൻപന്തി കൊടുക്കാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവർ വല്ലാതെ പ്രയത്നിക്കുന്നുണ്ട്